ആ ഹലോ അതെ പറഞ്ഞോ അയ്യോ വരെ കരിമീൻ ഒരു കിലോ അടുപ്പിച്ച് കാണത്തില്ല കരിമീൻ തീരാറായി ഇരിക്കുവായിരുന്നു ആ ഇല്ലില്ല എടുത്ത് എടുത്തുവയ്ക്കണോ ആ ഹാ ഹാ അല്ല നമ്മളെ നമുക്ക് ഡെലിവറി ചെയ്യുന്ന ചെറുക്കൻ പുറത്തോട്ട് പോയിരിക്കുവാണ് ഇവിടെ ആരുമില്ല നിങ്ങൾ ആരെയെങ്കിലും പറഞ്ഞുവിടുവായിരുന്നെങ്കിൽ നന്നായിരുന്നു ആ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് വേണോ അതോ ഇങ്ങനെ തന്നെ മതിയോ ആ ഹാ ഹാ ക്ലീൻ ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ ചാർജസ് കോസ്റ്റ് ചെയ്യുമേ ആ ആ ആ ആ എന്നാൽ ആരെ എവിടുന്നാണെന്ന് വെച്ചാൽ വിട്ടാൽ മതി ഞാൻ സ്കാനർ അല്ല ആളുടെ കയ്യിൽ പൈസ കൊടുത്തുവിടുവോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുവോ ചെയ്താൽ മതി ഞാൻ നമ്പർ പറഞ്ഞുതരാം ആ ആ കരിമീൻ മാത്രം മതിയോ വേറെ എന്തെങ്കിലും മീൻ വേണോ മാം കരിമ കരിമീൻ വില എന്ന് പറയുമ്പോൾ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് നമ്മൾ ഫ്രഷ് കരിമീനാണ് നമ്മൾ ആറ്റിൽ നിന്ന് പിടിച്ച് ഡയറക്റ്റ് കൊണ്ടുവരുന്ന കരീമീനാണ് വേറെ നമുക്ക് ചെമ്മീൻ ഉണ്ട് കൊഞ്ച് ഉണ്ട് നമുക്ക് കരിമീന്റെ റെപ്ലിക്ക തിലോപ്പിയ ഉണ്ട് പിന്നെ അങ്ങനെ കുറേ മീനുകളൊക്കെ ഉണ്ട് വേറെ ആറ്റുമീൻ വേറെ ഫ്രഷ് മീനുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഏതെ ആ എന്നാൽ എൻ ആ എന്താണ് വേറെ എന്തെങ്കിലും വേണമെങ്കിലും അവനോട് പറഞ്ഞുവിട്ടാൽ മതി ആ ആ നമ്മൾ ഇപ്പം ഇതിപ്പം ഒരു കിലോ ആ ഇതിപ്പോൾ ഒരു കിലോ അടുപ്പിച്ചില്ല ഞാൻ ഒന്ന് തൂക്കി നോക്കട്ടെ മാം ഇത് നമുക്കൊരു അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഒക്കെ ഉള്ളൂ നമുക്കിത് ക്ലീൻ ചെയ്ത് തരേണ്ടേ അപ്പം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിട്ടാൽ മതി ആളെ ആ ഹാ ഹാ ആ ആ ഹാ ഹാ ഓക്കെ ഓക്കെ ആ ശരി